വാർത്തകൾ കാണുന്നത് പൂർണ്ണമായും മലയാളത്തിലാണ് ഞങ്ങളുടെ പ്രദേശത്ത് മീഡിയനെറ്റ് എന്ന് എന്ന ഒരു വാർത്താ ചാനല് ഉണ്ട് ടി വിയിലൂടെ ഞങ്ങൾക്ക് അത് നിത്യേന കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഉച്ചയ്ക്ക് രണ്ട് മണിക്കും നാല് മണിക്കും രാത്രി പത്ത് മണിക്കും വാർത്തകൾ സംപ്രേഷണം ചെയ്യുന്നുണ്ട് സംപ്രേഷണം ചെയ്യുന്ന വാർത്തകളിൽ പ്രാദേശികമായിട്ടുള്ളതും കേരളത്തിലാകെയുള്ളത് പ്രധാനപ്പെട്ടതുമായ വാർത്തകൾ അവർ സംപ്രേഷണം ചെയ്യുന്നുണ്ട് പ്രാദേശികമായിട്ടുള്ള എല്ലാ വാർത്തകളും സംപ്രേഷണം ചെയ്യുന്നുണ്ട് കൂടാതെ പ്രാദേശികമായിട്ടുള്ള എല്ലാ പ്രോഗ്രാമ്കളുടെയും സമയബന്ധിതമായിട്ടുള്ള ഇടയ്ക്ക് അവയെല്ലാം കാണിക്കുന്നുണ്ട് മലയാള മാധ്യമങ്ങളാണ് ഞങ്ങളുടെ പ്രദേശത്ത് ഞങ്ങൾ വായിക്കുന്നത് അടിമാലിയിൽനിന്നും പ്രാദേശികമായിട്ടിറക്കുന്ന നിറവ് എന്ന പ്രാദേശിക പത്രം ഇടുക്കി ജില്ലയെ സംബന്ധിച്ചുള്ള വാർത്തകൾ അറിയിക്കുന്ന ഒരു പത്രമാണ് അതുപോലെത്തന്നെ അതിൽ പ്രശസ്ത ജില്ലയിൽ തന്നെ പ്രശസ്തരമായി ആയിട്ടുള്ളവരുടെ നിരൂപണങ്ങളും ഓരേ വിഷയങ്ങൾ സംബന്ധമായിട്ടുള്ള അവരുടെ അഭിപ്രായങ്ങളും പത്രത്തിലൂടെ ഞങ്ങൾക്കറിയുവാനായിട്ട് കഴിയുന്നുണ്ട് പിന്നെ വാട്സാപ്പ് ഗ്രൂപ്പുകളും ഉണ്ട് പ്രാദേശികമായ ആയിട്ടുള്ള മലയാളം വാർത്താ മലയാളം വാർത്തകളറിയിക്കുന്നതായ വാട്സാപ്പ് ഗ്രൂപ്പുകൾ സജീവമായിട്ടുണ്ട് അത് അതിലൂടെയും പ്രാദേശികമായിട്ടുള്ള ഓരോ കാര്യങ്ങളും ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇതെല്ലാം മലയാള ഭാഷയിൽ തന്നെയുള്ളതാണ് മലയാള ഭാഷ യിലുള്ള മാധ്യമങ്ങളും വാർത്തകളുമാണ് ഞങ്ങൾ കൂടുതലായിട്ട് കാണുന്നത് അത് വളരെ ഭംഗിയായിട്ട് ഞങ്ങളുടെ ഇവിടെയുള്ള മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് ദൃശ്യമാധ്യമം എന്നതുള്ളത് മീഡിയാനെറ്റ് ആണ് മീഡിയാനെറ്റിലൂടെ മലയാളത്തിലെ പ്രധാന വിവരങ്ങളെല്ലാം ഞങ്ങൾക്ക് അറിയുവാനായിട്ട് കഴിയുന്നുണ്ട്